എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് കൂളർ ആണ് അതായത് നമുക്ക് നല്ലൊരു അതായത് നമ്മുടെ കാലാവസ്ഥ പറയണപോലെ ഭയങ്കര ചൂട് കാര്യങ്ങൾ ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല പുറത്തും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത് ഈ മഴക്കാലത്ത് കൊണ്ട് നമുക്ക് ഭയങ്കര വെയിൽ അനുഭവപ്പെടുന്ന സമയമാണ് കണ്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ചൂടിനെ എതിർക്കാനുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫാൻ ഇടുക അല്ലെങ്കിൽ കൂളർ മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അല്ലെങ്കിൽ വിശറി ഉപയോഗിക്കുക വിശറി ഉപയോഗിക്കുന്നതൊന്നും പോസിബിൾ അല്ല കാരണം എത്ര എത്രനേരം നമ്മൾ കാറ്റ് വീശിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം എല്ലാവരും പറഞ്ഞു പിന്നെ ഫാൻ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് താത്പര്യം കൂളർ ആണ് കൂളർ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച നല്ല നല്ലൊരു രീതിയിലുള്ള തണുപ്പാണ് കിട്ടുക നമ്മൾ എ സിയിൽ കിട്ടുന്ന പോലത്തെ തണുപ്പാണ് നമുക്ക് കൂളറിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കൂളർ അതുപോലെതന്നെ നമുക്ക് കൂളർ കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെയ്ക്കാം അങ്ങനെ മാറ്റി മാറ്റി കൊണ്ട് നടക്കാം അങ്ങനെയുള്ള ഒരു ഉപകാരം ഒക്കെ ഉണ്ടായി നല്ല നല്ല അഭിപ്രായമാണ് എനിക്ക് കൂളറിനെ കുറിച്ച്